ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പതിനേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി അഞ്ച് ഇരുപത്തി ആറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന്